സ്കൂൾ വിദ്യാഭ്യാസത്തിനുശേഷം പൊതുവേ എല്ലാവരും ഉയർന്ന പഠനത്തിന് പോവുകയാണ് പതിവ് അല്ലാത്തവർക്ക് ബിസിനസ്സ് താല്പര്യമുള്ളവർക്ക് ബിസിനസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ജോലിക്ക് പോകണം എന്നുള്ളവര് ജോലിക്ക് പോകുന്നത് പോകുന്നുണ്ട് അത് ഓരോരുത്തരുടെ താൽപര്യം അല്ലെങ്കിൽ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ഇരിക്കും ചെലവരും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭൂരി പാശം ഭൂരിപക്ഷം പേരും മുൻ ഉയർന്ന പഠനത്തിന് പോവുകയാണ് ചെയ്യാറുള്ളത് എൻറെ അഭിപ്രായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലിചെയ്യുകയും അപ്പോൾ തന്നെ നമ്മള് സമ്പാദിക്കാൻ തുടങ്ങുകയും ചെയ്യണം അപ്പോൾ നമുക്കൊരു കയ്യില് പൈസയും ഉണ്ടാകും കാരണം നമ്മള് പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും ഫിനാൻഷ്യലി കുറച്ച് നമ്മള്

സ്റ്റെബിലൈസ് ചെയ്യാനും അത് നമുക്ക് സഹായിക്കും അല്ലെങ്കിൽ ബിസിനസ്സില് കഴിവുള്ളവർക്ക് ബിസിനസ്സ് ചെയ്യാവുന്നതാണ് അതില് കഴിവും അതില് ഉത്സാഹവും അതേപോലെതന്നെ അതില് താൽപര്യവും ഉള്ളവർക്ക് അതില് പിടിച്ചു നിൽക്കാനും അതിനെ വളർത്തിക്കൊണ്ടു വരാനും സാധിക്കും അല്ലെങ്കിൽ മുൻ പഠനത്തിന് പോകുന്നവർക്ക് അവർക്ക് എന്താണ് ആവശ്യം അവർക്ക് എന്താണ് പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ചിട്ട് പഠിക്കുക അതിൽ തന്നെ ജോലി കണ്ടെത്തുക